കലാസൃഷ്ടികളില് ഏർപ്പെട്ടിട്ടുണ്ട് മത്സരത്തിലാണെങ്കിലും ഒരു കോളേജ് ലെവൽ ആയാലും സ്കൂൾ ലെവൽ ആയാലും മത്സരത്തിലാണെങ്കിലും പ്രദർശനത്തിനാണെങ്കിലും എൻ്റെ കല ഞാൻ അവിടെ കാണിക്കാറുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എന്താണ് ചോദിച്ച് വന്നാൽ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നാടകത്തിലും എല്ലാത്തിലും അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ കൂടുതൽ ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചു പറഞ്ഞാ എനിക്ക് അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ പോയി മത്സരിക്കാറിണ്ട്